പൂന്തോട്ടം മാത്രമല്ല പച്ചക്കറി തോട്ടം ഉണ്ടാക്കുന്നത് എനിക്ക് വളരെ ഇൻട്രസ്റ്റുള്ള ഒരു സബ്ജക്റ്റ് ആണ് തൈകൾ ഏത് ചെടി എവിടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ എവിടെ പോയാലും ഒരു ചെടി ഉണ്ടെങ്കിൽ പുതിയത് കണ്ടാൽ അത് ഉടനെ എടുത്തു കൊണ്ട് വരും വീട്ടിൽ അത് നടും പിന്നെ അതിൻ്റെ പരിപാലനം നടത്തും ഇങ്ങനെ റെയ്നി സീസണിന് ഇവിടെ ഉള്ള ഒരു ആറ് മാസം ഉണ്ടാവുന്നത് കൊണ്ട് ഏത് സമയത്ത് ചെടി നട്ടാലും വളരും അതിന് കൂടുതൽ പരിപോഷണ ആവശ്യം ഒന്നും വരുന്നില്ല പിന്നെ നമ്മൾ വീട്ടിലുണ്ടാവുന്ന ഗ്രോ ബാഗിൽ ചെയ്യൂ പിന്നെ വീട്ടിൽ ഇത് ബയോ കമ്പോസ്റ്റ് പച്ചക്കറിയെല്ലാം മുറിക്കുന്ന വേസ്റ്റെല്ലാം ഒരു കംപോസ്റ്റ് പെട്ടിയിൽ ഇട്ടിട്ട് അത് യൂസ് ചെയ്യും അതുകൊണ്ട് നല്ല പോലെ വരും പുഷ്പ്പങ്ങൾ പിന്നെ പച്ചക്കറി ഇത് രണ്ടാണ് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത് അത് പൂക്കൾ കുറച്ച് റോസാ പൂവെല്ലാം ഇൻട്രസ്റ്റ് ഉണ്ട് അതിൽ ആ റോസാ പൂവ് അത്ര നല്ലതായിട്ട് ഇവിടെ നോക്കാൻ ആകുന്നില്ല അതിന് കുറച്ച് പോഷണം പരിപോഷണ കൂടുതൽ ആവശ്യമുള്ളത് കൊണ്ട് അത് അങ്ങനെ വളർത്താൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഫാൻസി ഫ്ലവേഴ്സെല്ലാം ഉണ്ടല്ലോ അത് നല്ല പോലെ ആവും പിന്നെ ഇവിടെ നഗരസഭയിൽ കൃഷിക്ക് നല്ല പ്രോത്സാഹനം കിട്ടുന്നില്ല അതിന് വേണ്ട്യ രാസവളങ്ങളെല്ലാം സബ്സിഡി റേറ്റിൽ കിട്ടുന്ന വ്യവസ്ഥ ഉണ്ട് അതുകൊണ്ട് രാസവളങ്ങൾ നമ്മൾ വാങ്ങിയിട്ട് അതെല്ലാത്തിനും ഉപയോഗിക്കാം പച്ചക്കറി വിത്തുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ കൃഷി സംബന്ധമായ സെമിനാറുകൾ അവർ നടത്തണുണ്ട് അതിൽ പോവും നമ്മളെ കാസർഗോഡിൽ സി പി സി ആർ ഐ ഉണ്ട് പ്ലാനിറ്റേഷൻ കോർപ്പറേഷൻ ഉണ്ട് അവർ കൃഷിക്കാർക്ക് നല്ല പ്രോത്സാഹനം ഇടക്കിടയ്ക്ക് നമ്മൾ വിളിച്ചാൽ അവർ വരും നമ്മളെ മണ്ണിൻ്റെ പ്രോബ്ലം എല്ലാം ഉണ്ടെങ്കിൽ അവരോട് പോയിട്ട് പറഞ്ഞാൽ മതി അവർ അത് പരിഹാരം കാണും അത് ചെറുപ്പത്തിലേ ഉണ്ടായത് കൊണ്ട് കുറച്ചൊക്കെ സബ്ജെക്റ്റ് സയൻസ് ആയത് കൊണ്ട് ബയോളജി ആയത് കൊണ്ട് കുറച്ചൊക്കെ അറിയാം കൂടുതൽ പരിഹാര മാർഗ്ഗങ്ങൾ നമ്മൾക്ക് പറഞ്ഞ് തരും പിന്നെ പച്ചക്കറിയും അങ്ങനെ ഇവിടെ ബൈയങ്ങ ടൊമാറ്റോ പിന്നെ പച്ചമുളക് അത് കൂടുതൽ ആവും പിന്നെ പയർ പയർ വർഗ്ഗങ്ങൾ അത് നല്ല പോലെ കിട്ടും നമ്മൾക്ക് വീട്ടിൽ തന്നെ വീട്ടാവശ്യത്തിന് വേണ്ടത്ര നമ്മൾക്കു വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് അത് അതല്ലാതെ പിന്നെ തെങ്ങ് ഇങ്ങനെ ഉണ്ടല്ലോ അത് നമ്മൾ കൃഷി ചെയ്യേണ്ട ആവശ്യം ഒന്നുമില്ല അത് തന്നാൽ വളർന്നിട്ട് കഴിഞ്ഞു ഇത് ടെമ്പററി ആയിട്ട് ഒരു ആറ് മാസം നാല് മാസം പിന്നെ ഒരിക്കൽ മാറ്റേണ്ടി വരുന്നുണ്ട് പിന്നെ പൂക്കൾ പറഞ്ഞാൽ പിന്നെ റോസാപ്പൂ മാത്രം ബുദ്ധിമുട്ട് ബാക്കിയെല്ലാ പൂക്കൾ മണ്ണിൽ നടന്ന ചി ല പൂക്കളെല്ലാം ഉണ്ട് ചെണ്ട് പൂവെല്ലാം അതെല്ലാം നല്ല പോലെ ആവുന്നുണ്ട് അതാണ് കുറച്ച് ശ്രദ്ധിക്കേണ്ടി ശ്രദ്ധ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് അങ്ങനത്തേത് മാത്രമേ നടു നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാരാണ് അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ ചെടികൾക്ക് മാത്രം കൊടുക്കാൻ ആവുന്നില്ല അതുകൊണ്ട് ഉണ്ടായ അത്ര സമയം വൈകുന്നേരം സമയം രാവിലെ രണ്ട് നേരം ഇത് ഗ്രോ ബാഗിൽ ഉണ്ടായാൽ രണ്ട് നേരം വെള്ളം കൊടുക്കേണ്ടി വരുന്നുണ്ട് മണ്ണിലുണ്ടായ ചെടിക്ക് ഒരു പ്രാവശ്യം ഇട്ടാൽ മതി ഗ്രോ ബാഗ് ചട്ടീലെല്ലാം നട്ടാൽ അതിന് രണ്ട് തവണ വെള്ളം കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതെല്ലാം കൊടുത്തിട്ട് നല്ല പോലെ നോക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് വേനൽക്കാലം തുടങ്ങിയത് കൊണ്ട് കുറച്ച് കൂടുതൽ ശ്രദ്ധ വേണം ഇപ്പോൾ എല്ലാ പച്ചക്കറിയെല്ലാം ആവുന്നില്ല അത് ഒന്നാവുന്നില്ല ചില പൂക്കൾ മാത്രമേ ഈ സമയത്തിന് നമ്മൾക്ക് കിട്ടൂ അടുത്ത് അമ്പലമുണ്ടായത് കൊണ്ട് അമ്പലത്തിന് പൂവെല്ലാം കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് സമയം നമ്മൾക്ക് ചിലവാക്കാനുള്ള ഒരു നല്ല മാർഗ്ഗമാണ് നമ്മുടെ ഈ പൂന്തോട്ടമുണ്ടാക്കുന്നത് പച്ചക്കറി തോട്ടമുണ്ടാക്കുന്നത് എല്ലാ നമ്മൾ മനസ്സിനൊരു ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ വിഷമമുണ്ടങ്കിൽ അത് കളയാനുള്ള നല്ല ഒരു അവസരം ഇതിൽ നമ്മൾക്ക് കിട്ടും